ഗ്രാമത്തിലാണെങ്കിലും നഗരത്തിലാണെങ്കിലും അധ്യാപക രീതികളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലും ഗ്രാമത്തിൽ വളരെ കുറവായിരിക്കും അധ്യാപക അധ്യാപനം വളരെ കുറവായിരുന്നു നഗരത്തിലാണെങ്കിൽ അത് വളരെ വലിയ സിറ്റി ആയിരിക്കും സോ അവിടെ സ്കൂളുകളാണെങ്കിലും എഡ്യൂക്കേഷൻ സെൻറർസ് എല്ലാം ഭയങ്കര കൂടുതലായിരിക്കും ഗ്രാമത്തിലും അതൊക്കെ ഭയങ്കര കുറവായിരിക്കും സോ അധ്യാപന രീതി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ ഓരോ ടീച്ചേർസ് ഉണ്ടാകും ടീച്ചേർസ് ഉണ്ടാവില്ല പഠനം കുട്ടികൾ കുറവായിരിക്കും ഇപ്പം നഗരത്തിലാണെങ്കിൽ കുട്ടികളൊക്കെ കൂടുതലായിരിക്കും വലിയ വലിയ എഡ്യൂക്കേഷൻ സെൻറർസ് ആയിരിക്കും സോ അതൊക്കെ ഭയങ്കര വലുതായിരിക്കും അധ്യാപന രീതി എന്ന് പറയുമ്പം അതു ഭയങ്കര എന്താണ് പറയുക അധ്യാപന രീതി എന്ന് പറയുമ്പം ആ ഇപ്പം ഓരോ ടീച്ചേർസ് പഠിപ്പിക്കുന്നത് നിലവാരങ്ങളും ഓരോന്നും ചിലപ്പം ട്രെയിനിങ് ടീച്ചേഴ്സും ഒക്കെ ആയിരിക്കാം ചിലപ്പം അവർ പഠിപ്പിക്കുന്നതും സ്ഥാപിച്ച ടീച്ചേർസ് പഠിപ്പിക്കുന്നതും എല്ലാം വ്യത്യാസം ഉണ്ട് ഉണ്ടായിരിക്കാം ഓരോന്ന് ചിലപ്പം നല്ലവണ്ണം മനസ്സിലാക്കുന്നതായിരിക്കും ചിലപ്പം മനസ്സിലാവാത്തത് ആയിരിക്കും ഓരോ ടീച്ചേർസ് ഒക്കെ അങ്ങനെ ആയിരിക്കും ഗ്രാമത്തിലും നഗരത്തിലും ഒക്കെ അങ്ങനെയാണ്